ഹല്ലോ ഹല്ലോ അ അതേലൊ ആരായിരുന്നു അ അതേ അതേ അതേ പറഞ്ഞോ പറഞ്ഞോ ആ ഓക്കെ പറഞ്ഞോ സാർ മുരിക്കാശേരി ആയിട്ടല്ലേ സാർ എങ്ങനത്തെ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല വീടായിട്ടാണോ അതോ സ്ഥലം മാത്രം മതിയോ റോഡ് സൗകര്യം ഉള്ളതല്ലേ ആ നമ്മുടെ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് അവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെ അഞ്ച് കിലോമീറ്റർ മാറി നല്ലൊരു സ്ഥലം കിടപ്പുണ്ട് ആ ഒരു പത്തു സെൻ്റെ് സ്ഥലവാണ് കിടക്കുന്നത് ഹല്ലോ ഹല്ലോ ഹല്ലോ ഹല്ലോ ഹല്ലോ കേൾക്കത്തില്ലേ ആ സാർ നമ്മളുടെ ഇവിടെ ക്ഷേത്രമുണ്ട് ഈ ഇവിടെ ഒരു എന്നാ ശിവൻറ്റൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് അഞ്ച് കിലോമീറ്റർ മാറി ഒരു പത്തു സെൻ്റെ് വീടും അല്ല സ്ഥലം കിടപ്പുണ്ട് അപ്പം എന്താ സർ എങ്ങനത്തെ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് വീടായിട്ട് വേണോ അതോ എന്നാ അല്ല സ്ഥലം മാത്രം മതിയോ സ്ഥലം മാത്രമായിട്ട് അല്ലേ സ്ഥലം ആ വീട് വയ്ക്കാനായിട്ട് അല്ലേ അപ്പം സ്ഥലമായിട്ട് കിടപ്പുണ്ട് പതിനഞ്ച് പത്ത് സെൻ്റെ് സ്ഥലം കിടപ്പുണ്ട് റേറ്റൊക്കെ എങ്ങനെയാണ് സാർ ഉദ്ദേശിക്കുന്നത് ഇവർ ഈ സ്ഥലത്തിന് പറയുന്നത് പത്തു ലക്ഷമാണ് സെൻറിന് ഒരു ഒരു സെൻറിന് മൂന്നു ലക്ഷമായിട്ടാണ് ഒരു സെൻറിന് മൂന്നു ലക്ഷം ആ മുപ്പത് വരും അപ്പം ആ നമുക്ക് അതൊന്ന് ആ ഓണറിനോട് ചെന്ന് ഒന്ന് ചോദിക്കാം ആ എനിക്കു പറയാൻ പറ്റില്ലല്ലോ എൻ്റെ സ്ഥലമല്ലല്ലോ ആ വെള്ളമൊക്കെ ഉണ്ട് നല്ല അ നല്ല വഴിയാണ് കുഴലാണ് ആ വഴിയൊക്കെ നല്ലത് പോലെ തെളിച്ചിട്ടേക്കുന്നതാണ് ആ നല്ല വഴിയൊക്കെയാണ് ആ രണ്ടു കിലോമീറ്റർ മാറി മെയിൻ റോഡാണ് ആ അത്യാവശ്യം സിറ്റിയൊക്കെ അടുത്തൊക്കെയുണ്ട് നല്ല അയൽവാസികളാണ് പിന്നെ അടുത്ത് പള്ളി ഉണ്ട് കുറച്ചങ്ങ് മാറി പള്ളി ഉണ്ട് ആ ക്ഷേത്രമുണ്ട് ആ അത് തന്നെ അവിടെ അതിൻ്റെ അടുത്ത് അഞ്ചു കിലോമീറ്റർ മാറിയാണെന്നേ ഉള്ളു പിന്നെ ഒരു പത്തു കിലോമീറ്റർ മാറുകയാണെങ്കിൽ പള്ളി ഉണ്ട് സ്കൂൾ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു പത്തു പന്ത്രണ്ട് കിലോമീറ്റർ പോയാൽ ഒരു സ്കൂൾ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് എന്നാ ആശുപത്രിയും ഉണ്ട് ആശുപത്രി ഉണ്ട് മ്മ് സാർ എന്നാ ഫ്രീ ആകുന്നത് ആ അല്ല സർ ഫ്രീ ആകുവാണേൽ നമുക്ക് നാളെ തന്നെ പോയി കണ്ടേക്കാമായിരുന്നു ആ നാളെ സാറിന് എപ്പോഴാണ് തിരക്ക് കുറയുന്നത് ടൈം പറയുകയാണേൽ ഞാൻ ഇറങ്ങിയേക്കാമായിരുന്നു ഉച്ചയാകുമ്പത്തേനും അല്ലേ ആ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഉച്ചയാകുമ്പത്തേനും പോയി സ്ഥലമൊക്കെ കണ്ട് ചോദിക്കാം അല്ലാതെ വേറെ സ്ഥലം അല്ലാതെ കുറച്ച് കൂടെ മാറി സ്ഥലം ഉണ്ട് പതിനാല് സെൻറ്റ് അല്ലാതെ കിടപ്പുണ്ട് മൊത്തത്തിൽ എത്രയാണ് ഉദ്ദേശിക്കുന്നത് ആ മൊത്തത്തിൽ പതിനാല് സെൻ്റാണ് കിടക്കുന്നത് അത് മൊത്തത്തിൽ എടുക്കുവാണെങ്കിലേ അവർ തരത്തുള്ളു സ്ഥലം ആ ആ നാളെ എന്തായാലും നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇറങ്ങിയേക്കാം ഞാൻ സാറിനെ വിളിച്ചേക്കാം ആ സാറിൻ്റെ വീട് എവിടെ ആയിരുന്നു ആ അവിടെ തന്നെയാണ് അല്ലേ ആ ആ ഓക്കെ എന്നാൽ ശരി സാർ നാളെ വിളിക്കാം ആണല്ലെ ആ ആ അ എന്തായാലും നാളെ തന്നെ നമുക്ക് ഇറങ്ങിയേക്കാം ഓക്കെ സാർ എന്നാൽ ശരി